ഹലോ കാക്കേ നിങ്ങളെവിടേക്കാണ് പോകണത് ആ ഞാനിവടെ കുറെ നേരമായി ഇങ്ങൾ വന്നായിരുന്നോ ബെസ്സ് വന്നപ്പിവിടെ ആ ഞാനും കോഴിക്കോടക്കാ കുറെ നേരമായി ഇപ്പം ഞാനും ബെസ്സ് കാത്തിരിക്കണത് ആ ഇങ്ങളെവുടുന്നാണ് ആ ഞാൻ ഞാൻ മലപ്പുറത്തൂന്നാണ് ഞാൻ വെറുതെയി മഞ്ചേരിക്ക് വന്നു കോഴിക്കോടൻ ബെസ്സ് കയറാൻ ഇങ്ങൾ ഏത് ബെസ്സിനാ പോകണത് ആ ഞാനുവൈനന്നെ എന്നാൽ നമുക്ക് മുണ്ടീമ്പറഞ്ഞു ഇങ്ങനെ പോകലേ ഇങ്ങൾ കോഴിക്കോടക്ക് ഇപ്പം എന്തിനാണ് പോകണത് ആ എന്തിപ്പം ആശുപത്രിക്ക് പോണിപ്പം എന്തിനാണ് ആ ആദ്യമായിട്ട് പോവ്വ ചെക്കപ്പിന് പോയിക്കാണല്ലേ ഞാനിപ്പഴേ ഞാന് കുറച്ച് സാധനമൊക്കെ വാ ഇങ്ങളക്കെ വാങ്ങാൻ സ്കൂളൊറക്കല്ലെ കുട്ടികൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ വിചാരിച്ചോണ്ട് പോകാണ് അപ്പോൾ വന്നിന്നഞ്ഞ

മലപ്പുറത്ത് കടേലക്കെ നല്ല വിലയാണ് കാക്കീ എന്തൊരു വിലയാ ഏറ്റുമാള് പോയാൽ നമുക്ക് ഇഷ്ടമാതിരിക്ക് തെരഞ്ഞെടുത്ത് പോരെ അതാണ് ആ ആ അവിടൊക്കെ ഭയങ്കര വില അവിടെ കോഴിക്കോട് ഭയങ്കര നല്ല കുറവുണ്ടേ ഞങ്ങളവിട്ന്നന്നെ വാങ്ങൽ സാധനം ആ കെ എസ് ർ ടി സിക്ക് പോയാൽ മറ്റേ ബെസ്സിലായാൽ തലക്കൊക്കെ ഒരു പൂഴ്ത്തികേടാണെ ഛർദ്ദിക്കാൻ വരോ ഓരോരുത്തർ കുളിക്കാത് സ്പ്രേയടിച്ചോണ്ടക്കങ്ട് കയറും അപ്പാട് ഗതികേടല്ലെ ഇതീലായോ നല്ല സുഖം ആന്ന് എന്നായിക്കോട്ടേട്ട എന്നാൽ ശരി